ഞാൻ എയർകണ്ടീഷണർലാണ് വാങ്ങിയത് അത് ഞാൻ ഇവിടുത്തെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടായിരുന്നു വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു എയർ കണ്ടീഷണർ ആയിരുന്നു അത് ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഭയങ്കര അസഹ്യമായ ചൂടാണ് നമുക്കിവിടെ ഭയങ്കര ചൂടാണ് ഭയങ്കരചൂടാണ് രാവും പകലുമെന്ന് ഇല്ലാത്ത ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ ഒരു എയർ കണ്ടീഷണർ വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് താങ്ങാവുന്ന റേറ്റ് ആയിരുന്നു പിന്നെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മേന്മ ഉണ്ട് നമുക്കും ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതു കൊണ്ട് നല്ല എനിക്കും ഭയങ്കര ഉപകാരവുമാണ്